ഞാൻ എൻ്റെ ഒരു സഹോദരൻ്റെ കല്യാണത്തിന് പാടിയ സമയത്ത് ഞാൻ അധികം അതു പ്രാക്ടീസ് ഒന്നും ചെയ്യാത്ത ഒരു സമയത്ത് പെട്ടന്നായിരുന്നു എനിക്ക് ആ പാടേണ്ടൊരു അവസ്ഥ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ തെറ്റുകൾ കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ ഉറപ്പായിരുന്നു എന്തായാലും എനിക്ക് തെറ്റിപ്പോകും എന്നുള്ള കാര്യം പക്ഷെ ഞാൻ എന്നാലും അത്രയും നിർബന്ധിച്ചത് കൊണ്ടുതന്നെ ഞാൻ സ്റ്റേജിൽ കയറി മ്യൂസിക്ക് ഇട്ടു പാടാൻ തുടങ്ങി പക്ഷെ അന്നെനിക്ക് പാടിയ സമയത്ത് എനിക്ക് വേറെ ആരോ പാടുന്നപോലെ കാരണം എൻ്റെ വോയ്സ് ആരോ അങ്ങനെ പാടിപ്പിക്കുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഒരു തെറ്റും വരാതെ വരികൾ ഒക്കെ കറക്ട് ആയിട്ട് മറന്നുപോവാതെ എനിക്ക് പാടാൻ സാധിച്ചു ഞാൻ തെറ്റിപ്പോകും എന്ന് അതായത് എനിക്ക് പാടുന്നതിൻ്റെ തൊട്ടു മുൻപ് വരെ കിട്ടാത്ത വരികൾ എനിക്ക് ഒരു ആ സ്റ്റേജിൽ കയറിയ സമയത്ത് എനിക്ക് ആ വരികളൊക്കെ ഓർമ്മ വന്നു അതുപോലെ തന്നെ പതറിപ്പോകും എന്നുള്ള സ്ഥലങ്ങളിൽ ഒക്കെ എനിക്ക് കറക്ട് ആയിട്ട് പിച്ച് കിട്ടി ഞാൻ ഞാൻ വിചാരിക്കുന്നതിൽ അപ്പുറത്ത് എനിക്ക് വളരെ മനോഹരമായിട്ടാണ് പാട്ട് അവിടെ പാടാൻ സാധിച്ചത് അത് എനിക്ക് ഒരുപാട് സന്തോഷം ഉള്ള കാര്യം ആണ് കാരണം ഞാൻ ഒരിക്കലും അത്രയും നന്നായിട്ട് ആ വേദിയിൽ ആ പാട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എൻ്റെ പാരെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഞാൻ ആ പാട്ട് അവിടെ കംപ്ലീറ്റ് ആക്കൂമോയെന്ന് കാരണം പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ഓക്കെ ആണ് പക്ഷെ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്താൽ പാടുന്ന സമയത്ത് പക്ഷെ ഞാൻ വിചാരിച്ചതിനെയും കാട്ടി മനോഹരമായിട്ട് എനിക്ക് ആ പാട്ട് പാടാൻ അവിടെ സാധിച്ചു